ഹലോ ആരാ വിളിക്കുന്നത് ആ എടി പെട്ടെന്ന് ഞാൻ ഒത്തിരി നാളായില്ല നിന്നെ കണ്ടിട്ട് അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് ഓർക്കാതെ മറന്ന് പോയി സൗണ്ടൊക്കെ നമ്മൾ ഫോണുകൂടെ കേൾക്കുമോ മാറിപ്പോയില്ലേ അതുകൊണ്ട് ഒന്ന് വിചാരിക്കുകയും ചെയ്യല്ലേ കേട്ടോ അതെതെ അതെ അതെ അതെ അതെ നീ ഫോണ്കൂടെ വരുമ്പോൾ നമ്മൾ നമ്മൾ കളിച്ചും ഒന്നിച്ച് നടന്നതല്ല നീ മറന്നു പോയല്ലേ ഞാൻ അങ്ങനൊന്നും മറക്കുകേല പെട്ടെന്ന് ആ അതെ അതെ അതെ അതെ മ് ഓക്കെ ആ അതിന് ഇപ്പം എന്നാ നമുക്ക് ആലോചിക്കാം അലോചിക്കാം നമുക്ക് എല്ലാവരോടുംകൂടെ എല്ലാവരുടെയും ഒക്കെ അഡ്രസ്സ് ഒക്കെ നമുക്ക് ഞാനോട് കൂടി എനിക്കത് ആ പറഞ്ഞോ അതെ മ് അതെ അതെ അതെ അതെ അതെ അതെ അതെ ആ അതെ ആ നമുക്ക് തീർച്ചയായിട്ടും കൂടാം തീർച്ചയായിട്ടും കൂടാം പിന്നൊരു കാര്യം പരമാവധി നമുക്ക് പിന്നെ അറിയാവുന്നവരോടൊക്കെ നമ്പൊരു ശേഖരിക്കാം എനിക്കറിയുന്നത് ഞാൻ തരാം നിനക്കറിയുന്നത് നീയുംകൂടെ ശേഖരിക്കണം എല്ലാതും നമുക്ക് അവരെയൊക്കെ ഫോണ് വിളിക്കാം പിന്നെ നമുക്ക് ആരെങ്കിലും അയൽപക്കത്തുള്ളവരോടും ആണെങ്കിൽ നീ അവരെക്കൂടെ ഒന്ന് കൺഫേം ചെയ്യണം അവരെക്കൂടെ ഒന്ന് നമുക്ക് അവരെക്കൂടെ ഒക്കെ വിളിക്കാം എവിടെ എന്ന് എല്ലാവരും നമുക്ക് ഇപ്പം ഓർമ്മ ഇല്ലല്ലോ ഒരോ സ്ഥലത്ത് ഓരോന്ന് ആ ശരി ശരി ആ പിന്നെ ആ ആ പിന്നെ ആ ആ അതെ അതെ അതെ അതെ അതെ അതെ അതെ അതെ അതെ മ് ആ ആ അതെ അതെ അതെ ആ ആ അതെ അതെ മ് മ് ആ അതെ മ് ആ കരുതാം കരുതാം മ് ശരി ആ നമുക്ക് ഡിസംബറിൽ എല്ലാതുംകൂടെ അവധി എന്നാണ് വെച്ചാൽ ഇന്ന് സൗദിക്ക് പിള്ളേർക്കൊക്കെ ലീവ് അല്ലേ അപ്പം നമുക്ക് ഇപ്പം സൗദിക്ക് സ്കൂളൊക്കെ അടക്കം പിള്ളേരും ഫ്രീയാവും നമുക്ക് മക്കളെയും കൊച്ചുമക്കളെ എല്ലാം കൊണ്ട് എല്ലാവരും കൂട്ടിയൊക്കെ നമുക്ക് ചെയ്യാം എന്ത് ആ ഡേറ്റ് ഇരുപത്ത ക്രിസ്മസ് കഴിഞ്ഞിട്ട് നമുക്ക് ഡേറ്റ് തീരുമാനിച്ചാൽ മതി അതുപോരെ മ് ആ ആ ആ പിന്നെ പിന്നെ പിന്നെ എന്നാ ഇപ്പം വേറെ എന്നാ ഉണ്ട് എവിടെ പോകാനാ നമുക്കൊരു ടൂറൊക്കെ പോയാലോടി എടി നമുക്കൊരു ടൂറൊക്കെ അടിച്ചാലോ നമ്മൾ എന്നും വീട്ടിൽ കുത്തിയിരുന്ന് ഓക്കെ ആ കൂടാൻ കൂടാൻ നമുക്ക് ആ പിന്നെ ഒരു കാര്യം ഞാൻ പറയാവേ ഞാൻ ഓർത്തപ്പം പറയാം ഇല്ലെങ്കിൽ ഞാൻ മറന്നുപോവും ഈ നമ്മുടെ ആ മറിയാമേച്ചിക്ക് നമ്മളെ അപ്പുറത്തെ ടീച്ചറില്ലേ ആ ടീച്ചർ തീരെ കിടപ്പാണെന്നൊക്കെ പറഞ്ഞേട്ടെടി നമുക്ക് ആ ടീച്ചറിനേയൊക്കെ ഒന്ന് പോയി കാണണം ഏ അവരെ പോയി കാണണം എന്തോരം നമുക്ക് അതെയതെ അതെ സഹായം ചെയ്യണം സാമ്പത്തികമായിട്ടോ അല്ലാതെ തന്നെ നമുക്ക് അന്വേഷിച്ച് അതിനുള്ള സഹായങ്ങൾ നമുക്ക് ചെയ്യണം ഒരു ടൂറൊക്കെ ഒക്കെ ചെയ്യണം മ് മ് ഇനി എന്നാ ഉണ്ട് പറയാൻ മറിയാമ്മ ടീച്ചറിൻ്റെ വീട് പണ്ട് നമ്മുടെ നമ്മുടെ അടുത്ത അങ്ങോട്ടങ് പോകുമ്പോഴായിരുന്നേ ഇപ്പം ഇനി വല്ലയിടത്തും മാറിയോ നമുക്കൊന്ന് അന്വേഷിക്കാം കറക്റ്റ് ആ അറിയാം നമ്മൾ പോവുന്ന വഴിക്കല്ല നമുക്ക് ആരെങ്കിലും അറിയാവുന്നവർ കോൺടാക്ട് ചെയ്യാം കോൺടാക്ട് ചെയ്യുമ്പോൾ അവർ ഇന്നടുത്താണെന്ന് പറയാം ആശുപത്രിയിലാണോ വീട്ടിലാണോ ആ വീട്ടിലാണോ എങ്ങനെയാണെന്നൊക്കെ നമുക്ക് ആലോചിച്ചിട്ട് നമുക്ക് ചെയ്യാം തിർച്ചയായിട്ടും വെക്കാം വെക്കാം എടി കുറേക്കാരുടെയൊക്കെ ഉണ്ടെന്ന് എല്ലാവരുടെയൊക്കെ ഉണ്ടെന്ന് എൻ്റെ ഉള്ളത് നിനക്ക് ഞാൻ അയച്ച് തരാം എന്റേൽ ഉള്ളതൊക്കെ നിനക്ക് അയച്ച് തരാം ആ ഇല്ലാത്തത് ആ നമുക്ക് അന്വേഷിക്കാം ആരോടെങ്കിലൊക്കെ നമ്പര് ചോദിച്ച് ഇല്ലാത്തവരുടെ ഒക്കെ ആഡ് ചെയ്യാം എനിക്ക് അറിയാവുന്ന നമ്പര് ഞാൻ പാടെ നിനക്ക് അയച്ചുതരാം നിനക്ക് അറിയാവുന്ന നമ്മൾ രണ്ടും അറിയത്തില്ലാത്ത ആരൊക്കെ ഉണ്ടെങ്കിൽ അടുത്തുള്ള ടീച്ചർമാരോടോ അയല്പക്കത്തുള്ള ആരോടെങ്കിലും നമുക്ക് അന്വേഷിക്കാം മ് ആ ശരിയാ ശരിയാ ആ ആ അത് ഞാൻ ഓർത്തില്ല കേട്ടോ ആ കാര്യം ഞാൻ ഓർത്തില്ല ആ ആ ഓർക്കുന്നുണ്ട് ഓർക്കുന്നുണ്ട് ഓർക്കുന്നുണ്ട് ആ ശരിയാ ശരിയാ അത് എല്ലാവരും ഒക്കെ സുഖമായിട്ടിരിക്കുന്നു ആ മോളൊക്കെ വന്നിട്ട് പോയി മോന് മെഡിക്കൽ സ്റ്റോർ ഇട്ടിരിക്കയാണ് അവൻ അങ്ങോട്ട് പോയിരിക്കുകയാണ് മണി ഇപ്പം രണ്ട് കഴിഞ്ഞു കേട്ടോ വിശക്കാൻ തുടങ്ങി വിശക്കാൻ തുടങ്ങി എനിക്കും വിശക്കാൻ തുടങ്ങി ആ ആ ആ പിന്നീടെല്ലാം ആ ചെയ്യാം ചെയ്യാം ആ ശരി എന്നാൽ താങ്ക്സ് നീ മറന്നില്ലല്ലേ